ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായിട്ടും പ്രകൃതി വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് മരത്തിൻ്റെ ബിസിനസ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം എന്ന് വച്ചാ കഴിഞ്ഞാല് ഇപ്പം മരം മരം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ വളരെയധികം കുറവാണ് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെയുണ്ടെങ്കില് നമുക്കതൊരു ബിസിനസ്സായിട്ട് വേണമെങ്കില് ഏറ്റെടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സാധിക്കുന്നതാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പം എല്ലാവരും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കൃഷി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് വാഴ കൃഷിയുണ്ട് ബന്ദി കൃഷി കുരുമുളക് കൃഷി കാപ്പി കൃഷി അങ്ങനെ പല തരം കൃഷികളുണ്ട് അപ്പം അതൊക്കെ പ്രകൃതിയിൽ നിന്നും നമ്മള് നട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം അത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങള് കൊണ്ട് നമുക്ക് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പം വാഴ കൃഷിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുല നമ്മള് കടകളില് കൊണ്ട് പോയി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളതിന് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് മാ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് ഇവിടെ കണ്ട് വരാറുള്ള ബിസിനസ്സ് കാര്യങ്ങളൊക്കെയെന്ന് വേണമെങ്കിൽ പറയാം കുരുമുളകു ഇതേപോലെ തന്നെയാണ് എന്താ പറയുക നമ്മള് കൃഷി ചെയ്യുന്നതൊക്കെ ഇതേപോലെ തന്നെയാണ്